ഹലോ മാതാ സ്റ്റുഡിയോയുടെ ഓണറാണോ അ തോമസ് തോമസ് സെബാസ്റ്റ്യനല്ലെ ആ ഞാൻ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ കാര്യത്തിനു വേണ്ടി വിളിച്ചതാണേ എൻ്റെ എൻ്റെ സിസ്റ്റർ എൻ്റെ സിസ്റ്ററുടെ എൻഗേജ്മെൻറ്റാണ് അപ്പം നിങ്ങളെ കുറിച്ച് നല്ല ഫോട്ടോഗ്രാഫും ഒക്കെ ആണെന്ന് നല്ല ഇതാണെന്നും ഉള്ള ഫീഡ് ബേക്കിൻ്റെ പുറത്താണ് ഞാൻ വിളിക്കുന്നത് അപ്പോൾ ഒരു വീഡിയോ നമുക്ക് ഇപ്പം പിന്നെ രണ്ടിൻറ്റെയും പിന്നെ വീഡിയോയുടെയും ഫോട്ടോയുടെയും റേറ്റും വീഡിയോ മാത്രം ആണെങ്കിൽ എത്ര രൂപയാകും ഫോട്ടോ മാത്രം എത്ര ആണെന്ന് ഒന്നു പറയാൻ പറ്റുമോ

നെക്സ്റ്റ് സൺഡേ അതായത് എട്ടാം തിയതി സ്ഥലം കൈതാനം ഓഡിറ്റോറിയം മാതാ ഓഡിറ്റോറിയം അ എൻഗേജ്മെൻറ്റ് പതിനൊന്ന് പതിനൊന്ന് മണിക്കാണ് ഞാൻ എൻഗേജ്മെൻറ്റ് അതായത് വീട്ടിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണ്ടേ കാലത്തേ പിന്നെ സ്തുതി കൊടുക്കുന്നതിൻ്റെയൊക്കെ ആ വണ്ടി നിങ്ങൾ വണ്ടി അറേഞ്ച് ചെയ്യേണ്ടി വരും കാരണം ആ സമയത്തു വണ്ടി ഒന്നും അവൈലബിളല്ല നിങ്ങളുടെ സാധനങ്ങളെല്ലാം വെയ്ക്കണ്ടേ ക്യാമറയും അതിൻ്റെ സ്റ്റാൻഡും അതും എല്ലാം കൂടി ഓക്കെ നിങ്ങളത് സ്വന്തമായിട്ട് വണ്ടിയിൽ വരുന്നതായിരിക്കും നല്ലത് കാരണമെന്നു വെച്ചാൽ പള്ളിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ വണ്ടി അറേഞ്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാണും ആ സമയത്ത് തിരക്കാണെങ്കിൽ നിങ്ങളുടെ കാര്യം നോക്കാൻ നമുക്ക് സമയം കാണത്തില്ല അ അ കോസ്മെറ്റലി എന്നു പറയുവാണെങ്കിൽ നമ്മളുടെ ഒരു ചെറിയ ബഡ്ജറ്റിലുള്ള പരിപാടി ആണ് അപ്പം നമുക്കൊരു ഒരു ഇപ്പം ഈ ഫങ്ക്ഷൻ എന്ന എന്നാൽ ആകുമോയെന്നൊന്ന് അറിയാനാണ് അതനുസരിച്ച് വീഡിയോ വേണോ അല്ലെ വീഡിയോ ഒഴിവാക്കണോ അല്ലെ ഫോട്ടോ മാത്രം മതിയോ അതായത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതാണെങ്കിൽ രണ്ടും കൂടി വേണോ എന്നൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിലൊന്ന് കേൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെ അപ്പം രണ്ടും കൂടി രണ്ടും കൂടി ഒരു ലക്ഷം രൂപയോ അപ്പം നമുക്ക് എത്ര എത്ര പേജ് കാണും ആൽബത്തിൽ ഫോട്ടോസിന്

അപ്പം നമുക്ക് പിന്നെ അതിൻ്റെ ആദ്യമേ അതൊന്ന് യു എസ് ബിയിൽ എടുത്തു തരണം ഫോട്ടോ നമുക്ക് ഫോട്ടോ മാത്രം മതി നമുക്ക് വീഡിയോ വേണ്ട ഫോട്ടോ മാത്രം മതി അതിനെ യു എസ് ബീയിൽ യു എസ് ബി എടുത്തിട്ട് നമ്മൾ നോക്കിയിട്ട് അത് പ്രിൻറ്റ് എടുത്താൽ മതി വീഡിയോ വേണ്ട ഫോട്ടോ

ഒരു ലോസ് ഞാൻ വ ഞാൻ വരാം ഞാൻ നിങ്ങളുടെ സ്റ്റുഡിയോയിലോട്ടു വരാം അതു തന്നെ അല്ല നമുക്കാദ്യമേ യു എസ് ബിക്കകത്ത് എടുത്തു തരണം എന്നിട്ട് നമ്മളത് സെലക്റ്റ് ചെയ്തിട്ട് നമുക്ക് പ്രിൻറ്റ് അടിച്ചാൽ മതി പിന്നെ ഞങ്ങളുടെ കസിൻസൊക്കെ പോകുന്നതു കൊണ്ട് നമുക്കെത്രയും പെട്ടെന്ന് ആൽബവും കിട്ടണം റേറ്റ് നിങ്ങൾ ഇച്ചിരി കൂടി കൂടിയാലും അങ്ങനെ ഒരുപാട് കൂട്ടത്തില്ലല്ലോ കുറച്ചല്ലേ കൂടത്തുള്ളു പൈസ ഫോട്ടോയ്ക്കാണോ ഒരു ലക്ഷം ഒന്നും നമുക്ക് പറ്റത്തില്ല ഒരു ഇരുപത് പത്ത് രൂപയൊക്കെ കൂടിയ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും അ അ അല്ല നിങ്ങളുടെ ക്വാളിറ്റിയെ കുറിച്ചറിയാവുന്നതു കൊണ്ടാണല്ലോ നിങ്ങളുടെ ക്വാളിറ്റിയെ കുറിച്ചറിയാവുന്നതു കൊണ്ടാണല്ലോ നമ്മൾ നിങ്ങളെ ഇപ്പോൾ തേടി വിളിച്ചത് അപ്പം നിങ്ങൾക്ക് നിങ്ങളിങ്ങോട്ട് നമ്മുടെ നിങ്ങളുടെ വർക്കിനെ കുറിച്ചെനിക്കറിയാവുന്ന കൊണ്ടും നല്ല വർക്കാണെന്ന് അറിയുന്നതു കൊണ്ടാണ് നമ്മൾ വിളിച്ചത് പിന്നെ റേറ്റിൽ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അതെ അതെ അത് കണ്ടു കൊണ്ട് അതു കണ്ടു കൊണ്ടാണ് നമ്മൾ വിളിച്ചത് ആ ശരി ശരി ശരി ഓക്കെ എന്നാൽ ഞാനേ ഞാൻ നമുക്ക് നേരിട്ട് സംസാരിക്കാം ബാക്കി റേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ എന്നാൽ